ഇത് പച്ചക്കറിൻ്റെ ഷോപ്പ് അല്ലേ

ഇതേ ഞാൻ

ഇത് ഒരു പച്ചക്കറി വേണമായിരുന്നു എന്തെല്ലാം സാധനം ഉണ്ട് ആ സാമ്പാറിന് വേണ്ട സാധനം വേണമായിരുന്നു

ആ വീട്ടിൽ ഫംങ്ഷൻ ഉണ്ട് ഫ്രഷ് ഉണ്ടല്ലേ ഫ്രഷ് ഉണ്ടോ ഫ്രഷ് ഫ്രഷ് എല്ലാം ഫ്രഷന്നയാ

അത് കുറേ കുറച്ച് അധികം വേണമായിരുന്നു അത് ഒരു ഒരു അഞ്ഞൂറിൻ്റെ ഇതിൽ ഉണ്ട് അഞ്ഞൂർ ആൾക്കാറെ പരിപാടി

ആ എടുത്തോളീ നല്ല ഫ്രഷ് ആണോ എത്രയാവും റേറ്റ് റേറ്റ് പൈസ എത്ര ആവും പൈസ എത്ര

ആ ആ ഇത് ഞാൻ അങ്ങോട്ട് വരാം ആ തുണി സഞ്ചി എടുത്തു കൊണ്ട് വരാം ആ ശരി